ആ ഹലോ ഇതാരാരുന്നു ആ അതേല്ലോ ആ എത്ര ദിവസായി തുടങ്ങിയിട്ട് ആണോ ആ ഇപ്പം എന്നിട്ട് ഭയങ്കര അസ്വസ്ഥതയുണ്ടോ ഹോസ്പ്പിറ്റലിൽ കാണിച്ചില്ലായിരുന്നോ ആ എന്തേലും ടാബ്ലെറ്റ് എന്തേലും കഴിച്ചിട്ടുണ്ടാരുന്നോ ഓക്കെ ശർദിയാണോ കണ്ടിന്യുവസായിട്ട് ഇങ്ങനെ ശർദ്ദിച്ചു പോവാണോ പിന്നെ വേറെ എന്തേലും അസുഖങ്ങളുണ്ടോ ആ ആ ഓ ആ ഓക്കെ എന്ത് ഫുഡ്ഡായിരുന്നു കഴിച്ചത് ആ എന്താ കഴിച്ചത് ഷവർമ വല്ലതും ആണോ ആ ഇപ്പോൾ ഓൾറെഡി ഷവർമയൊക്കെ കഴിച്ചു കുറെ സീനുകള് ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പോൾ ഫുഡ് പോയിസൺ തന്നെയാണ് നിങ്ങളെന്തായായാലും റസ്റ്റ് ഇന്നും കൂടിം റസ്റ്റ് എടുക്കുക ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് വാട്ട്സപ്പ് ചെയ്ത് തരാം തൽക്കാലം ആ മരുന്നൊന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്ക് എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ നാളെ ഹോസ്പ്പിറ്റലിലേക്ക് വരണം കാർണം അധിക നാള് വച്ചോണ്ടിരിക്കണ്ട ഇത് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം സീനായിട്ടുള്ളതാണല്ലോ ആ ആ ശർദി കുറഞ്ഞില്ലേൽ നാളെ എന്തായാലും ആ ഹോസ്പ്പിറ്റലിലേക്ക് വരണം കേട്ടോ ആ ഓക്കെ പിന്നെ ചൂടുള്ള വെള്ളമൊക്കെ മാക്സിമം കുടിക്കുക പിന്നെ ഇനിയിപ്പം ജങ് ഫുഡ്സൊന്നും അധികം കഴിക്കണ്ട മാക്സിമം കഞ്ഞി ആ ഞാ ചമ്മന്തിയൊക്കെ ആയിട്ട് വീട്ടില് ഹോം റെസിപ്പീസൊക്കെ ആയിട്ടുള്ള ഫുഡില്ലേ അതന്നെ കഴിക്കുക ഉം ഓക്കെ എന്തായാലും ഞാനിപ്പോൾ ഒരു മരുന്ന് ഞാൻ ഫോർവാഡ് ചെയ്ത് തരാം വാട്ട്സപ്പിലേക്ക് ഈ നമ്പറില് അയച്ച് തന്നാൽ മതിയോ ആ ഓക്കെ ഓക്കെ എന്തായാലും നാളെ ഹോസ്പ്പിറ്റലിലേക്ക് വാ കുറഞ്ഞില്ലെങ്കിൽ ഓക്കെ താങ്ക് യു